നമ്മൾക്ക് ഒരു സാങ്കേതിക വിദ്യ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളുമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം എങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എഴുതിക്കൊടുത്ത് കൗണ്ടറിൽ നേരിട്ട് ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്താണ് നമ്മൾക്ക് ഒരു ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യ നമ്മൾക്ക് കൈവന്നതു മുതൽ നമ്മൾക്ക് ഓൺലൈനിൻ നമ്മുടെ മൊബൈലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും ഈസിയായിട്ട് അത് വലിയ ഒരു സഹായമാണ് അതായത് നമ്മൾക്ക് അപ്പോൾ നമ്മുടെ ട്രാൻസ്പോട്ടേഷൻ കോസ്റ്റ് ഇതെല്ലം നമ്മൾക്കവിടെ നമ്മൾ ബസ്സ് പിടിച്ച് പോയി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് വിദിൻ വൺ മിനിട്ട് അല്ലെങ്കിൽ വിദിൻ ടു മിനിട്ട്സ് നമ്മൾക്കത് സാധിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾക്ക് ഹോട്ടലിലുള്ള ബുക്കിങ്ങാണെന്ന് പറഞ്ഞാലും ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ എയർപോട്ടുകളിൽ നമുക്ക് ചെക്ക് ഇൻ സൗകര്യങ്ങൾ ഓൺലൈനിൽ ഉണ്ട് ഈ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മളെ യാത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരവും ഉയർത്തുകയും നമ്മുക്കവിടെ ടൈം സേവ് ചെയ്ത് കാര്യങ്ങൾ വളരെ സുഗമമായി കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബസ്സ് ഡിപോട്ട് ലൊക്കേഷനുകളിൽ നമ്മൾക്ക് ബസ്സിൻ്റെ യാത്ര വിവരണങ്ങൾ ഏത് സ്റ്റേഷനുകളിൽ ഏതു സമയം എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈസിയായിട്ട് വിരൽത്തുമ്പിൽ നമ്മൾക്കറിയുവാൻ സാധിക്കുന്നുണ്ട് അതുതന്നെ വലിയ ഒരു അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് പ്ലാറ്റ്ഫോം നമ്പറുകൾ സ്റ്റേഷൻ്റെ അകത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വളരെ ഈസിയായിട്ട് നമ്മളെ കോച്ച് സംവിധാനം എവിടെയാണ് അതുപോലെ തന്നെ നമ്മളുടെ കംപാർട്ട്മെൻ്റ് എവിടെയാണ് എന്നൊക്കെ നമ്മൾക്ക് മൊബൈലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി നമ്മുടെ ടൈം സേവ് ചെയ്ത് അവർ നിർദേശിക്കുന്ന സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രകൾ നമ്മുക്ക് വളരെ സുഗമമാക്കാൻ പറ്റുന്നുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി ഇപ്പോഴത്തെ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഈ സാങ്കേതിക വിദ്യ നമ്മളെ ജീവിതവുമായിട്ട് വളരെ കെട്ടുപിണഞ്ഞ് കിടന്ന് മനുഷ്യന് വളരെ സൗകര്യപ്രദമായ രീതിയിൽ യാത്രകൾ ചെയ്യുവാനും എല്ലാ കാര്യങ്ങളിലും ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്പറുകൾ നമ്മൾക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് ട്രെയിനിൻ്റെ കംപാർട്ട്മെൻ്റും പിന്നെ പ്ലാറ്റ്ഫോം നമ്പറുകളും എല്ലാം നമ്മൾക്ക് ഈ സാങ്കേതിക വിദ്യകൊണ്ട് വളരെ ഈസിയായിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മൾക്കത് മനസ്സിലുവാക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ സുഗമമായി കാര്യങ്ങൾ നമ്മൾക്ക് വളരെ ടൈം സേവിങ്ങാണ് നമുക്ക് അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം വളരെ അവൻ്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായ ഒത്തിരി എളുപ്പമാക്കുന്നതിന് ഗതാഗതം എളുപ്പമാക്കുന്നതിനും എല്ലാം ഈ ഈ സാങ്കേതിക വിദ്യ സഹായകമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം